എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ്സ് കുറച്ച് മേക്ക് അപ്പ് ഐറ്റംസായിരുന്നു അപ്പോൾ പിമ്പിൾ പോകാനുള്ള എന്തോ ഒരു ഓയിൻമെൻ്റോ ഓയിൻമെൻ്റോ ക്രീമോ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഒരു സാധനവും പിന്നെ ഫേസ് മോസ്ചർ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെർവ് ആയിരുന്നു അപ്പോൾ കുറച്ച് പ്രശ്നമായിരുന്നു അത് കാരണം ഞാൻ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയില്ല പിമ്പിൾ പോകാനുള്ള ഓയിൻ ആ ഓയിൻമെൻറ് അത് പിമ്പിൾ പോകാനെന്ന് പറഞ്ഞിട്ട് ഞാൻ പുരട്ടി കഴിഞ്ഞപ്പം എനിക്ക് പിമ്പിൾ കൂടുതൽ വരികയാണ് ചെയ്തത് പിന്നെ എൻ്റെ കുറച്ച് ചെറിയ പിമ്പിൾസൊക്കെ എനിക്ക് കുറച്ച് റെഡ്ഡിഷായിട്ട് പിന്നെയും തൊവാം തോന്നാൻ തുടങ്ങി അത് എന്താ അറിയില്ല പിന്നെ മോസ്ചറേസ് വലിയ പ്രശ്നമില്ല എന്നാലും അത് പെട്ടെന്ന് ഡ്രൈ ആവുകയാണ് ഹാഫ് ആൻ അവറും കൊണ്ടത് പെട്ടെന്ന് ഡ്രൈ ആയി പൂവാണ് പിന്നെ എന്തോ ഒരു പ്രോഡക്റ്റും കൂടി ഉണ്ടായിരുന്നു അത് ഒരു ലിപ് സീറം ഉണ്ടായിരുന്നു ലിപ് സീറം കംപ്ലിറ്റലി പിന്നെ ഇതായിരുന്നു എന്താകുന്നു വെച്ചാൽ ഒരു യൂസും ഇല്ലാത്തൊരു സാധനം വെറുതെ തേക്കുക ഒരു അഞ്ച് മിനിറ്റും കൊണ്ടത് ഡ്രൈ ആയി ജസ്റ്റും പിന്നെ നമുക്ക് ഒരു അസ്വസ്ഥതയാണ് ചുണ്ടിലത് പിന്നെ അപ്ലൈ ചെയ്തിട്ട് തീരെ ഒരു ഒന്നുമില്ല ഒരു കളറുമില്ല ഒരു സോഫ്റ്റ്നസ്സും ഇല്ല ഒന്നുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു